മലയാള ഭാഷ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മലയാള ഭാഷ അത് നല്ല കാര്യമാണ് മലയാളത്തിലാണ് ഫോമുകളെല്ലാം കിട്ടുന്നതുകൊണ്ടും കാര്യങ്ങളെല്ലാം മലയാളത്തിൽ നടക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോകുന്നു മലയാളഭാഷ നമ്മള് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് ഇപ്പുള്ള ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നെങ്കിലും നമ്മറ്ടെ നമ്മുടെ പൈതൃകം സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും മലയാളഭാഷ നമ്മള് കൃത്യമായിട്ട് ഉപയോഗിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് പഠിപ്പിക്കണം അതുപോലതന്നെ മലയാളഭാഷ എല്ലാ ഓഫീസുകളിലും മലയാളത്തിൽ അപേക്ഷാ ഫോമുകളെല്ലാം മലയാളത്തിൽ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരഭിപ്രായം മലയാള ഭാഷ നമ്മളേതു വ്യക്തിക്കും ആർക്കും വായിക്കാവുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും മലയാളഭാഷ വായിച്ചത് മനസ്സിലാക്കാനും അത് പൂരിപ്പിച്ച് നമുക്ക് കൊടുക്കാനും പറ്റുന്നൊരു കാര്യമാണ് മലയാളഭാഷ നമ്മുടെ സാംസ്കാരിക ഭാഷയായതുകൊണ്ട് നമ്മുടെ പിന്നെ പൈതൃകം നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പൈതൃകം നമ്മൾ സംരക്ഷിക്കണം അതിന് മലയാളഭാഷ തന്നെ വേണം അതാണ് മലയാളഭാഷ അത് മലയാളഭാഷയായതുകൊണ്ടതിനു നല്ല പങ്കാണുള്ളത് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാള ഭാഷ നല്ലത് തന്നെയാണെന്നും എൻ്റെ അഭിപ്രായം മലയാളഭാഷയുടെ കാര്യങ്ങളും മുന്നോട്ടു പോകാനും വായിക്കാനും എഴുതാനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളഭാഷയ്ക്ക് തന്നെയാണ് മറ്റു ഭാഷകൾ മോശമാണെന്നല്ല പക്ഷേ മലയാള ഭാഷയെ പോലെ നല്ലൊരു ഭാഷ നമുക്ക് മനസ്സിലാക്കാനും ഏത് വ്യക്തിക്ക് അത് മനസ്സിലാക്കാനും എടുക്കാനുള്ള കഴിവ് മലയാള ഭാഷ കൊണ്ട് നമുക്ക് മനസ്സി ലാണ് നമ്മുടെ പൈതൃകമാണ് നമ്മുടെ മുതിർന്ന തലമുറയിലുള്ള ആൾക്കാരും മലയാള ഭാഷ പഠിച്ച അവര്ക്ക് ഏതെല്ലാം രീതിയിൽ മുന്നോട്ടുപോയതും ഈ മലയാളഭാഷ പഠിച്ചതുകൊണ്ടു തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം